മലയാളത്തിൽ സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചാൽ ഉണ്ട് എന്നാൽ ഇല്ല മലയാളം വളരെയധികം ഇല് സാധു ഭാഷ എന്നു പറയാൻ പറ്റില്ല കാരണം അത് അച്ചടി ഭാഷയിൽ അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഷയിൽ

ഭാഷയും അല്ലാത്ത രീതിയിൽ വർത്തമാന രീതിയിൽ വളരെയധികം ലഘൂകരിക്കപ്പെടുന്ന ഒരു ഭാഷയുമാണ് ആ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നു വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കൂടുതലും വാക്കുകൾ നമ്മുടെ വൊക്കാബുലറി അതിൽ അല്ലെങ്കിൽ വാക്കു വാക്കുപട്ടികയിൽ നമ്മൾ എടുത്തു വെയ്ക്കണം അതിനു വളരെയധികം വളരെ ഒട്ടനവധി പുസ്തകങ്ങൾ വായിക്കുക യും വായിക്കുകയും അതു മനസ്സിലാക്കുകയും അതിൽ കൊണ്ടുവരുന്ന നമ്മുടെ അതിൽനിന്നും ഉത്ഭവിപ്പിക്കുക ഉത്ഭവിക്കപ്പെടുന്ന വാക്കുകൾ നമ്മൾ ഉള് മനസ്സുകൊണ്ട് അറി അറിയാൻ ശ്രമിക്കുകയും ചെയ്യണം അങ്ങനെ വരുമ്പോഴാണ് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒഴിവാക്കുന്നത് അല്ലാണ്ടു തന്നെ മലയാളത്തിൽ കുറെ തൻ കുറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വരാറുണ്ട് കാരണം അവരുടെ ഴ എന്നുള്ള പ്രയോഗം ള നു പകരം അല്ലെങ്കിൽ നല്ല വ വായയോ വായയുടെ ഉച്ഛാരണം വളരെയധികം ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പരീക്ഷിക്കുന്ന ഒരു സംഭവം കൂടിയാണ്